ഹലോ ഇത് ഗവമണ് കൊളേജല്ലേ തലപ്പുഴയിൽത്തെ സാറെ ഞാന് എന്റെ പേര് അഭിജിത്താണെ അപ്പോൾ ഞാന് വിളിക്കുന്നത് കാട്ടിക്കുളത്തുനിന്നാണ് ആ എനിക്കൊരു അഡ്മിഷൻ എടുക്കണമായിരുന്നു അപ്പോൾ സ്പോട്ട് അഡ്മിഷനാ ഞാൻ നോക്കുന്നത് ഇപ്പം എന്തായാലും മറ്റേ നമ്മൾ അക്ഷയയിൽ കൊടുത്തുകഴിഞ്ഞാൽ കിട്ടില്ലല്ലോ അപ്പോൾ സ്പോട്ട് അഡ്മിഷനാ നോക്കുന്നത് മെക്കാനിക്കല് എഞ്ചിനീയറിന്റെ ഫീല്ഡിലേക്കാണ് ഞാന് നോക്കുന്നത് അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാ ഫസ്റ്റ് ഫീസ് ഒക്കെ വരുന്നത് ആ ആ ഓക്കെ ആ

ഓക്കെ അപ്പോൾ റൂമെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റര് എന്നാണ് സാറ് പറയുന്നത് ആ പിന്നെ സാറെ എനിക്കീ ഫസ്റ്റ് ഇയറിലേക്കല്ല വേണ്ടത് ഞാന് ഐ ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാ അപ്പോൾ ഡയറക്റ്റ് സെക്കന്ഡ് ഇയറിലേക്ക് കയറാൻ പറ്റും അങ്ങനെ ലാറ്റെൽ എന്ട്രി വഴി കയറാൻ പറ്റും അപ്പം ഞാന് സെക്കന്ഡ് ഇയറിലേക്ക് കയറാനുള്ള ഇതിലാണ് അങ്ങനെ അതിനാണ് വിളിച്ചത് ശരിക്കും

ഫസ്റ്റ് ഇയറിവിടെ ദ്വാരകാ ഐ ടി ഐ ലാണ് കംബ്ലീറ്റ് ചെയ്തെ ആ ഏ അംഗ് അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ എന്താ ലാറ്റെൽ എന്ട്രീ എന്ന് പറയും അതിന് സാറിനറിയാമല്ലോ ഇങ്ങനെ സെക്കന്ഡ് ഇയറിലേക്ക് കറക്റ്റ് സൈ ഏറ്റവും കൂടുതലവിടെ സയന്സ്കാരാരിക്കും അങ്ങനെ കയറലുണ്ടാവുക പക്ഷെ നമ്മൾ ഐ ടി ഐ ക്കാരായത് കൊണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ കയറുള്ളൂ ചിലർ ജോലിക്ക് പോവും ചിലരങ്ങനെ എടുക്കും അപ്പോൾ എനിക്കങ്ങനെ എടുക്കാന് താല്പ്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ ചോ വിളിച്ച് ചോദിച്ചത് ഓക്കെ ഞാനൊരു അടുത്ത വീക്കാവുമ്പത്തേക്കും വരാം ആണല്ലേ ഞാന് എന്തായാലും നോക്കുന്നുണ്ട് പാരന്റിനെ കൊണ്ട് വരണോ വരുമ്പോൾ ആണല്ലേ പിന്നെ ഫസ്റ്റ് അഡ്മിഷന് ഫീസ് ആദ്യംതന്നെ തരണം എന്നുണ്ടോ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ ആണല്ലേ ആ ഓക്കെ താങ്ക് യൂ സാര്